എനിക്ക് സ്പോട്ട്സിൽ ഏറ്റും ഇഷ്ടപ്പെട്ട താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യത്തിനായി ഏറ്റവും ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സിനു മുൻപേ തന്നെ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി ഇദ്ദേഹം ടെസ്റ്റിലും വൺ ഡേ ഇന്റർനേഷ്ണലിലൂടെ ചേർന്ന് നൂറിലധികം സെഞ്ച്വറികൾ അദ്ദേഹത്തിനു നേടുവാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹമടങ്ങുന്ന ടീമിന് രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് കപ്പ് ഇന്ത്യക്കായി വേൾഡ് കപ്പ് നേടാൻ സാധിച്ചു അദ്ദേഹം ലോക ക്രിക്കറ്റിൽ ഇന്നേ വരെ മറ്റാരും നൂറിലധികം സെഞ്ച്വറി നേടിയിട്ടില്ല അതോടൊപ്പം അദ്ദേഹം ഇന്ത്യക്കായിട്ട് ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിൽ കരിയർ പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം രണ്ട് ഫോർമേറ്റിലുമായിട്ട് ഏകദേശം പതിനയ്യായിരം റൺസിനധികം നേടുവാൻ ഇന്ത്യക്കായി നേടുവാൻ അദ്ദേഹത്തിനു സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ നിന്നു വിരമിച്ച ശേഷം വിവിധ പ്രീമിയർ ലീഗുകളിൽ മെൻറ്റോർ മെൻറ്റോറായിട്ടും കേവറ്റ് പങ്കെടുക്കുന്നുണ്ട് നിലവിൽ ഐ പി എല്ലിൽ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ മെൻറ്റോറാണ് അതോടൊപ്പം അദ്ദേഹത്തിന് ഇന്ത്യാ മഹാരാജ്യം ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ര രാജ്യസഭാ എം പിയായി ആറ് വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ത്തിൻ്റെ വൈഫിൻ്റെ പേര് അഞ്ജലി എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് അർജുൻ ടെണ്ടുൽക്കറും സാറ ടെണ്ടുൽക്കറും അദ്ദേഹം അർജുൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ ഐ പി എൽ മുംബൈക്കായി കളിക്കുന്നു അതോടൊപ്പം ഇപ്പം മഹാരാഷ്ട്രയ്ക്കു വേണ്ടിയിട്ട് രഞ്ജീട്രോഫികളിലെല്ലാം കാ കളിച്ചും മുന്നേറുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ പൊതു ഒരു കാരുണ്യവാനും നല്ലൊരു മനുഷ്യ സ്നേഹിയുമാണ് ഇന്ത്യയിലെ പല സ നഗരങ്ങളിലും അദ്ദേഹം ക്രിക്കറ്റിനായിട്ട് ഒരുപാട് സംഭാനകൾ സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊടോ അതോടൊപ്പം ഏറ്റും നല്ല ഒരു നല്ല മനുഷ്യനായി പല ബ്രാൻഡുകളുടെ അംബാസിഡറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ചൈത്രയാത്ര തുടരുകയാണ്